ഞാൻ യോഗ ചെയ്യുന്ന ഒരാളല്ല പിന്നെ ഒരുപാട് യോഗ ക്ലാസുകൾ നമുക്ക് യു ട്യൂബിലെല്ലാം അവൈലബിളാണ് യോഗ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാളുകള് അഭിമുഖീകരിക്കുന്ന ബുദ്ധി മുട്ടെന്താണെന്ന് വച്ചെങ്കില് കൂടുതലും ഇന്നത്തെ കാലത്ത് സമയം കിട്ടുന്നില്ല എന്നതാണ് കാരണം ഒരുപാട് എല്ലാ ആളുകളും ഭയങ്കര ബിസി ആയിട്ടാണിരിക്കുന്നത് അപ്പോള് അവർക്കൊന്നും ഇതിനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ഹെൽത്ത് മെയിൻറ്റെൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ജോലിക്കു പോകുകയും അല്ലെങ്കില് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനിടയ്ക്ക് അവർക്ക് ഇതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നതാണ് സത്യാവസ്ഥ പക്ഷേ എല്ലാവരും ദിവസവും യോഗ അല്ലങ്കിലെക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നല്ലതാണ്